ആ എന്താണ് മോളേ ഇത് മലപ്പുറത്തേയ്ക്ക് പോകണ ബെസ്സ് പെരിന്തൽമണ്ണക്കല്ല ഇത് മലപ്പുറത്തേക്ക് പോകണ ബെസ്സാ ആ ഇനിയിപ്പം ചെയ്യണം വെച്ചെങ്കിൽ ബെസ്സ് പാണായി എത്തി ഇനിയിപ്പം പാണായിന്ന് തിരിച്ച് അവിടെ പാണായി ഇറങ്ങികാണ്ട് പിന്നെ മഞ്ചേരിക്കുള്ള ബെസ്സ് കയറി ആനക്കായത്തെറങ്ങിക്കൊ ആനക്കായത്തെറങ്ങികാണ്ട് പെരിന്തൽമണ്ണക്കുള്ള ബെസ്സിൽ കയറേണ്ടി വരും ആ അല്ലെങ്കിൽ പിന്നെ മലപ്പുറത്തെക്ക് മലപ്പുറത്തിറങ്ങിയാണ് മലപ്പുറത്തൂന്ന് പിന്നെ പെരിന്തൽമണ്ണയ്ക്ക്ള്ള ബെസ്സ് കയറിക്കോണ്ടി ബെസ്സല്ലേ ബെസ്സ് നിർത്തണെ ചിലപ്പം സ്ഥലം സൗകര്യന്സരിച്ചിയാണ്ട് ചിലപ്പം വേണമെന്ന് വെച്ചങ്കിലും അവർ മാറി സ്ഥലത്തക്കെ നിർത്തി തരൂലേ കയറുമ്പോൾ ബോഡ് നോക്കണ്ടെ കുട്ട്യേ എന്നാൽ ആ ഇനീപ്പത് നോക്കീട്ട് കാര്യമില്ല അന്നാപ്പിന്നൊരു കാര്യം ചെയ്യ് ഒന്നോക്കൽ മലപ്പുർത്തെർങ്ങാ അല്ലാച്ചെങ്കിൽ പാണായിന്ന് പിന്നേ ഇങ്ങട്ട് മഞ്ചേരിക്ക് തിരിച്ച് കേറീട്ട് ആനക്കായത്തെറങ്ങിക്കോ ആനക്കായത്തെറങ്ങാണെന്ന് വെച്ചങ്കിൽ പെരന്തൽമണ്ണയ്ക്ക്ള്ള ബെസ്സ് കിട്ടും അതിൽ കയറേണ്ടി വരും ആ ഒരു മുക്കാൽ മണിക്കൂറക്കെ എടുക്കും ഇനി മലപ്പുറത്ത് എത്തികാണ്ട് മലപ്പുർത്തൂന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകണന്ന് വെച്ചങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറക്കെ എടുക്കും മലപ്പുർത്തെയ്ക്കൊരു പത്ത് നുപ്പത് റുപ്പ്യോളം വരും ആ മലപ്പുർത്തൂന്ന് പെരിന്തൽ മണ്ണയ്ക്ക് വരെ ആ പത്ത് നുപ്പത്തഞ്ച് റുപ്പ്യോളം അങ്ങനെ അതും വരും അ ഇനിക്കിപ്പം മലപ്പുർത്തേക്ക് പോര് ഇനിയിപ്പം അതീന്നെറങ്ങികാണ്ട് പിന്നെ ബെസ്സ് പെരിന്തൽമണ്ണയ്ക്കുള്ള ബെസ്സ് കിട്ടിയക്കെ ആകുമ്പോൾത്തെന് നേരാവൂലെ അപ്പം ഇനി പെരിന്തൽമണ്ണ മലപ്പുറത്തെറങ്ങികാണ്ട് അവിട്ന്നങ്ങട് പോകാമേന്നാൽ എന്നാൽ ശരി ആയിക്കോട്ടുട്ട്യേ